ഞാനൊരു ചെറിയ തയ്യൽക്കട നടത്തുന്നയാളാണ് ചെറുപ്പക്കാരും കുട്ടികളുവാണ് എൻറ്റട്ത്ത് കൂട്തൽ തയ്ക്കാനായിട്ട് വരുന്നത് അത്പോലെതന്നെ പല ഫാഷനുകളിൽ ഞാൻ ഡ്രസ്സ് മെറ്റീരിയൽസ് തയിച്ചിടും പിന്നെ നല്ല ഫാഷൻ അനുസരിച്ച് തയിക്കുന്നതിന് വില കൂടുതലാണ് സാധാരണ വലിയ ഫാഷനും വലിയ മോഡ മോഡലൊന്നും ഇല്ലാത്തതിന് വില കുറവാണ് ഏറ്റവും കൂട് അതിൻ്റെ ഫാഷനനുസരിച്ചാണ് നമ്മുടെ വില ഇടുന്നത് അപ്പം ഒത്തിരി ഡ്രസ്സ് ഡ്രസ്സ് മെറ്റീരിയലിൻ്റെ ഇതും ഫാഷൻ്റെ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെങ്ങനെയാണോ അതിനനുസരിച്ചാണ് വിലയിടുന്നത് ഏറ്റവും കൂടുതൽ ഒത്തിരി മോഡലും തുണി നല്ല മെറ്റീരിയലൊക്കെയാണെങ്കിൽ നമ്മള് ഒരയ്യായിരം രൂപയും കുറച്ച് ഫാഷനൊക്കെ ഉള്ളതിന് ആയിരം രൂപയൊക്കെ ആയിട്ട് ഇടും പിന്നെ സ്കൂൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് യൂണിഫോം തയ്ക്കാനായ്ട്ട് കിട്ടാറുണ്ട് അത് മിക്കവാറും ഷർട്ടും സ്കേർട്ടൊക്കെയാണ് അതിന് ഒരു അഞ്ഞൂ അഞ്ഞൂറ്റമ്പത് രൂപവെച്ചാണ് നമ്മള് വാങ്ങിക്കുന്നത് പിന്നെ ആൾക്കാർക്ക് അവര് പറയുന്നതിന് അനുസരിച്ച് ഉള്ള മോഡലിൽ നമ്മള് ഡ്രസ്സ് തയ്ച്ച് കൊടുക്കും എല്ലാവർക്കും വളരെ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടാറുണ്ടെൻ്റെ തയ്യല് അത്കൊണ്ട് ആൾക്കാര് കൂടുതലായിട്ട് വന്ന് തയ്പ്പിക്കാറുണ്ട് ഈ തയ്യൽ എന്നുള്ളൊരു സംരംഭം ഞാൻ നടത്തുന്നത് കാരണം വേറെ ജോലികൾക്കൊന്നും പോകാറില്ല എനിക്കൊരു ഹെൽപ്പർനേയും കൂടെ ഒരു സഹായിയേയും കൂടെ എൻ്റെ കൂടത്ത് വെക്കണമെന്നുണ്ട് കാരണം ഞാൻ തയ്ച്ച്തന്നെ തീരാറില്ല ഒത്തിരി ബുദ്ധിമുട്ടാണ് തന്നെ തയിച്ച് തീർക്കാനായിട്ട് താമസിക്കാതെയൊരു ഒരു സഹായിയേയും കൂടെ ഞാന് വെക്കും പിന്നെ ഓൺലൈനായിട്ട് ഞാൻ തുണി മെറ്റീരിയൽസെടുക്കാറുണ്ട് അത് നമുക്ക് ലാഭമാണ് പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ളതനുസരിച്ച് തയ്ച്ച് കൊടുക്കാനും ഇന്ന സമയത്ത് കറക്റ്റ് സമയത്ത് തയ്ച്ച് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കൂട്തലും ചുരിദാറ് മിഡിയും ടോപ്പ് മിഡിയും ടോപ്പും ചുരിദാറും സ്ക്ർട്ടും ഷർട്ടൊക്കെ തയിക്കുന്നത് പിള്ളേരുടെ മെറ്റീരിയൽസിനാണ് കൂടുതൽ ഊന്നല് കൊടുക്കുന്നത് പിള്ളേരുടെയും യുവതികളുടേയും അതായത് ചുരിദാറ് അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് എനിക്ക് തയ്ക്കാൻ വളരെയിഷ്ടവാണ് ഫാഷൻ ബ്രാൻഡിന് വേണ്ടിയൊന്നും ഞാൻ തയ്ക്കാറില്ല നമ്മുടെ സാധാരണ തയ്യൽക്കാരാണല്ലോ അത്കൊണ്ട് ആ രീതിയിൽ ഉള്ള തയ്യലൊക്കെയെ ഉള്ളു പുറത്തൊന്നും വേറെ തയ്യലിനൊന്നും വേറെ പണിക്കൊന്നും പോകാറില്ല